കേരളത്തിലെ ആളുകൾ അവരുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നന്നായിട്ടാണ് ആഘോഷിക്കുന്നത് ഓരോ ഉത്സവങ്ങളും ഓണം വിഷു ദീപാവലി കൃസ്മസ് അങ്ങനെയെല്ലാം കേരളീയർ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അത് നന്നായിട്ട് തന്നെയാണ് അവർ ആഘോഷിച്ച് പോകുന്നത് അതിനൊന്നൊരു മാറ്റവും വന്നിട്ടില്ല ആ ആഘോഷം നല്ലത് തന്നെയാണ് പിന്നെ ഏത് ഉത്സവമായാലും അത് നന്നായിട്ട് തന്നെയാണ് ആൾക്കാർ ആഘോഷിക്കുന്നു ഓരോ ആഘോഷത്തിനും അവരുടേതായ രീതിയിലുള്ള നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് പിന്നെ ഓണം വന്നാൽ അതിൻ്റേതായ രീതിയിൽ വസ്ത്രം ദീപാവലി വന്നാൽ അങ്ങനെ അങ്ങനെ ഓരോ ഉത്സവത്തിനും ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങൾ ഞങ്ങൾ ധരിക്കാറുണ്ട് പിന്നെ കേരളീയരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഓണം ഓണം എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഓണം ആഘോഷിക്കാറുണ്ട് അത് ദീപാവലിയായാലും അങ്ങനെ തന്നെയാണ് മലയാളികളും ആഘോഷിക്കും തമിഴ്നാട്ടുകാരും ആഘോഷിക്കും അതും കേരളീയർക്കും എല്ലാവർക്കും ബാധകമുള്ള ഒന്നാണ് ദീപാവലി ക്രിസ്മസും ജനങ്ങൾ മൊത്തം ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഓണം തന്നെയാണ് ഏറ്റവും വലിയ ആഘോഷം ഉത്സവം അത് പോലെ തന്നെയാണ്